എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കെന്നു പറഞ്ഞാൽ മഹാത്മാ ഗാന്ധിയുടെ സത്യം എന്നുള്ള ബുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതു ഞങ്ങൾ ഇവിടുന്ന് എങ്കിലും നമ്മുടെ വീടിന് അടുത്തു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ പോയാണ് ഞങ്ങളാ ബുക്ക് കളക്ട് ചെയ്തത് പിന്നെ ഞാനവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ടൗണിൽ തന്നെ ഒരു അക്ഷരശാലയെന്നു പറഞ്ഞു കൊണ്ടൊരു ബുക്ക് സ്റ്റാളുണ്ട് അവിടെ ചെന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് അത് ഇപ്പം മഹാത്മാ ഗാന്ധിയെ കുറിച്ച് മഹാത്മ ഗാന്ധിയുടെ ബുക്ക് എത്ര വായിച്ചാലും നമുക്കു മതിയാകത്തില്ല അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഗാന്ധിജി നമുക്കു വേണ്ടി ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രാ നമ്മുടെ രാഷ്ട്രത്തിനുവേണ്ടി ഇതൊക്കെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് നമുക്കു വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഉണർവാണ് നമുക്ക് ആ ഗാന്ധിയുടെ ബുക്ക് വായിക്കുമ്പോൾ നമുക്കു കിട്ടുന്നത് പല കാര്യങ്ങളും സത്യാന്വേഷണ കഥകളൊക്കെ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ അത് ഉപ്പുസത്യാഗ്രഹത്തിന് ഇരുന്നതും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാരണം ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ഉണർവു കിട്ടുന്നതുപോലെയാണ് അതുകൊണ്ട് നമുക്കാ ബുക്ക് എത്ര വായിച്ചാലും ഞങ്ങൾ അതു മതിയാകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ബുക്ക് ഒ ബുക്ക് ഹോളിൽ നിന്നു തന്നെയാണ് ഞങ്ങൾ ഈ ബുക്ക് മേടിച്ച് ഞങ്ങളിതു ചെയ്യുന്നത്